ലൈഫിൽ എപ്പോഴും ഒരു സുപ്രധാന തീരുമാനം എപ്പോൾ എടുത്തു എന്ന് ചോദിച്ചാൽ ആദ്യം ഓർമ്മ വരുന്നത് പ്ലസ്ടു എന്നാണ് പ്ലസ്ടു കഴിഞ്ഞതിനു ശേഷം ഇനി ഏത് ഫീൽഡിലേക്ക് പഠിക്കാൻ പോകണം എന്നുള്ളത് വളരേ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു അത് എൻജിനീയറിംഗ് ആവണോ ഡോക്ടർ ആവണോ അങ്ങനെ പലതും അതിനുവേണ്ടി ഫാമിലിയിൽ ഉള്ള എല്ലാവരോടും പല കാര്യങ്ങളും ചോദിക്കേണ്ടി വന്നു ഇന്ന ഫീൽഡ് പോകണോ ഇന്ന ഫീൽഡ് പോകണോ ഇതിലേത് എടുത്താലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഏത് എടുത്താലാണ് നമുക്ക് പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഏത് എടുക്കുമ്പോഴാണ് നമുക്ക് ജോബ് ഓപ്പറച്യുണിറ്റീസ് ഉണ്ടാവുക അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പലരുമായിട്ടും ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നു അതിന്റെ ഒടുവിലാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ഡിസിഷൻ എടുക്കാൻ വന്നൊരു സന്ദർഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതു തന്നെയാണ് അതായത് ഇനി ഏതാണ് നമ്മൾ പഠിക്കേണ്ടത് അത് നമുക്ക് പഠിച്ചാൽ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുവോ ഇത് എടുക്കണോ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത് ആ ഒരു മൊമെന്റിലായിരുന്നു അതിൽ നിന്ന് നമ്മുടെ അച്ഛൻ അമ്മ അങ്ങനെ എല്ലാവരുടേയും പെർമിഷനോടു കൂടിയും എല്ലാവരുടെയും സമ്മതത്തോടെ കൂടിയും നമ്മൾ എടുക്കുന്നതാണ് ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്